സ്ത്രീകൾ കായിക ഇനത്തിൽ ഇടപെടാറുണ്ട് ഞങ്ങളുടെ സ്കൂളുകളിലും മറ്റും എല്ലാം പിന്നെ നാട്ടിലും ചില കായിക ഇനങ്ങളിൽ സ്ത്രീകൾ പങ്കെടുക്കാറുണ്ട് ഇങ്ങനെയുള്ള സ്ത്രീകളെ എനിക്ക് കൂടുതലായിട്ടും അറിയാം എൻ്റെ ചില സുഹൃത്തുക്കളും എൻ്റെ ഗ്രാമവാസികളും പിന്നെ എൻ്റെ അയൽക്കാരുമെല്ലാമാണ് അയൽക്കാരുകളും ഇത്തരം കായിക രംഗങ്ങളിൽ പങ്കെടുക്കുന്നവരാണ് ഇന്ത്യയിൽ സ്ത്രീകൾക്കുള്ള കായികാ അവസരങ്ങളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വളരെ അവസരങ്ങൾ വളരെ കൂടുതലാണ് സ്ത്രീകൾക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾ ചില അവർ അവരുടെ അവസ്ഥകൾ മൂലം വീട്ടിലത്തെ അവസ്ഥകൾ മൂലം അവർ കായിക രംഗങ്ങളിൽ പങ്കെടുക്കാത്തവരാണ് കൂടുതലും അതുകൊണ്ടുത്തന്നെ ഇത്തരം കായിക രംഗങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്ന സ്ത്രീകൾക്ക് അത് വ വലിയ ഒരു മുൻഗണന തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവസരങ്ങളും കൂടുതലാണ് കാരണം എല്ലാ കഴിവ് കഴിവുള്ളടത്തോളം കാലം ഏതൊരു സ്ത്രീ പുരുഷൻ എന്നില്ലാ ആർക്കായാലും മുൻഗണന കൂടുതൽ തന്നെയാണ് സ്ത്രീകൾ ആയാലും പുരുഷന്മാർ ആയാലും കഴിവിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് കായികയിനങ്ങളിൽ ഏർപ്പെടുന്ന സ്ത്രീകളും കായികയിനങ്ങളിൽ ഏർപ്പെടുന്ന പുരുഷന്മാരായാലും അവരെല്ലാം കഴിവിനനുസരിച്ച് അവർ എത്തിപ്പെടേണ്ട നിലയിൽ തന്നെ എത്തിപ്പെടുകയും ചെയ്യും